ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഒരു ഫെസ്റ്റ്വൽ അതിനേക്കാൾ ഉപരി ഒരു പ്രാദേശിക പരമ്പര എന്ന് പറയുകയാണെങ്കിൽ അത് വള്ളംകളി തന്നെയാണ് വള്ളംകളിയുടെ ഒരു മേഘല തന്നെയാണ് ആലപ്പുഴ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആലപ്പുഴ വള്ളംകളീനെ കുറിച്ച് വളരേയേറെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളി അല്ലെങ്കിൽ നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്ന് പറഞ്ഞാൽ ഒരു നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഈ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കളി നെഹ്റു ട്രോഫി വള്ളംകളിയോട് അനുബന്ധിച്ച് തുടങ്ങുന്ന ഓരോ വള്ളംകളികൾ ആലപ്പുഴയിലെ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് ഈ ആലപ്പുഴ വള്ളംകളി നമുക്ക് ഏറെ വ്യത്യസ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു രീതി തന്നെയാണ് ആലപ്പുഴ വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആലപ്പുഴ വള്ളംകളിയിൽ പലതരം വള്ളങ്ങൾ പല മേഘലകളിൽ നിന്നുള്ള വള്ളങ്ങൾ അതിൽ ചുണ്ടൻവള്ളങ്ങളുണ്ട് വെപ്പ്വള്ളങ്ങളുണ്ട് ഓടിവള്ളങ്ങളുണ്ട് അങ്ങനെ പലതരങ്ങളിലുള്ള വള്ളങ്ങൾ വള്ളംകളി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ആലപ്പുഴ വള്ളംകളിയെക്കാളും ഉപരി ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വേറെ ഒരു എന്ന് പറയുന്നത് ഓണം തന്നെയാണ് ഓണം മറ്റ് മത്സരങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ മത്സരങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ മത്സരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്